ഇപ്പോൾ ഇതുവരെ ഞങ്ങള് സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അധികം ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും സന്ദർ സന്ദർശിച്ചത് അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെസ്ത് വ്യത്യസ്തതരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാനുള്ളത് ഇപ്പം ഓരോ ഹൈക്കിങിന് പോകുമ്പഴും നമ്മള് പല രീതിയിലുള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും സന്ദർശിക്കാറുള്ളത് ഇപ്പോൾ നമ്മള് കാണാത്ത രീതിയിലുള്ള സ്ഥലങ്ങള് ഒക്കെയാണ് നമ്മള് സന്ദർശിക്കാറുള്ളത് ഇപ്പോൾ ബീച്ചുകൾ ഇപ്പോൾ ഒരു ബീച്ചില് നമ്മള് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ബീച്ചലേക്ക് ആയിരിക്കും നമ്മള് ചിലപ്പോൾ പോകുക ആ ബീച്ചിൽ നമ്മള് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ആ ബീച്ചിൽ നമ്മൾ അധികം പോകാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മള് ചെയ്യുന്നത് അപ്പൊ ഇപ്പം കോഴിക്കോട് ബീച്ചിലൊക്കെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇപ്പം അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പിന്നെ സൂര്യ അസ്തമയം അങ്ങനത്തെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് അതേപോലെ നമ്മള് പല സ്ഥലങ്ങളിലും അതായത് പല രീതിയിലൊക്കെയാണ് പോകാറുള്ളത് പിന്നെ മലമുകളിൽ പോകാറുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ കാണാൻ വേണ്ടീട്ട് അതി മനോഹരമാണ് അപ്പം എന്നാൽ അവിടത്തെ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിട്ട് ഒരുപാട് ഭംഗിയാണ് ഉള്ളത്